കായിക വിനോദങ്ങൾ പിരിമുറുക്കങ്ങൾ മാറ്റാൻ മാത്രമല്ല മനുഷ്യരുടെ എല്ലാ ഒരു ആസ്വാദനത്തിനും വളരെ നല്ല ഒരു കാര്യമാണ് കാരണം എന്തിനാണെങ്കിലും നമ്മളിപ്പം കുട്ടികളാണേലും മുതിർന്നവർ ആണേലും ഒക്കെ ഓരോ കായിക വിനോദത്തിലേർപ്പെടുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ താൽപര്യങ്ങളാണ് ചിലർക്ക് ഫുട്ബോളാണെങ്കിൽ ചിലർക്ക് ക്രിക്കറ്റാണ് ചിലർക്ക് ക്രിക്കറ്റാണെങ്കിൽ ചിലർക്ക് കബഡിയാണ് ചിലർക്ക് കൊക്കോയാണ് അങ്ങനെ എന്ത് കാര്യമായിക്കോട്ടെ ഇപ്പം പെണ്കുട്ടികളൊക്കെയാണെങ്കിൽ അവർ ഇപ്പം ഡാൻസ് ഡാൻസ് അല്ലെങ്കിൽ പാട്ട് അല്ലെങ്കിൽ എന്ത് വിനോദമായിക്കോട്ടെ അത് വളരെ അധികം നല്ല കാര്യമാണ് അതിൽ നമ്മൾ ഏർപ്പെടുന്നത് അതിൻ്റെ പ്രധാനകാര്യം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള സ്ട്രെസ് കുറഞ്ഞിരിക്കും അതൊരു പ്രധാനകാര്യമാണ് പിന്നെ വേറൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ ഇന്നത്തെക്കാലത്ത് കുട്ടികൾക്കൊക്കെ ആണേലും അവരൊക്കെ ഓടി കളിക്കുന്നില്ല ഇപ്പം വീട്ടിൽ നിന്ന് വാനേ കയറുന്നു സ്കൂളിൽ എത്തുന്നു തിരിച്ച് അതേ വാനിൽ കയറുന്നു മുറ്റത്ത് വന്നിറങ്ങുന്നു അങ്ങനെയാണ് അപ്പം അവർക്ക് മറ്റെന്തെങ്കിലും കായിക വിനോദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ശരീരത്തിനും ഒക്കെ വളരെ അധികം നല്ലതാണ് പിന്നെ വേറെ എന്താന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാ ഇന്ന് എന്താന്നോയിച്ചാൽ സ്കൂളുകളിലാണേലും ഇങ്ങനെയെല്ലാം ഇതും ആക്ടിവിറ്റീസും ഇപ്പം എന്ത് കളികളിൽ താല്പര്യമുള്ള കുട്ടികളെയാണേലും അതിലവർ പ്രോത്സാഹിപ്പിക്കുക അതിൽ കഴിവുള്ള കുട്ടികളെ തിരഞ്ഞെടുത്തത് പ്രത്യേകം പഠിപ്പിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അത് കഴിവുള്ള കുട്ടികൾ അതിനൊക്കെ ചേരുക അതുവായിട്ട് മുൻപോട്ട് പോവുക അതൊക്കെ അവർക്ക് ശരീരത്തിനാണേലും മനസ്സിനാണേലും വളരെ അധികം നല്ലതാണ് അതിന് വീട്ടുകാരാണേലും അതിനുള്ള സപ്പോർട്ടും അതിനുള്ള സാഹചര്യവും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്ന് തന്നെയാണ് നമുക്ക് എന്തായാലും ചിന്തിക്കാനുള്ളത്